എറണാകുളം ജില്ലയിൽ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമ പഞ്ചായത്ത് എന്നിവയാണ് വരുന്നത് എറണകുളം ജില്ലയിൽ ആകെ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് ഈ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമ പഞ്ചായത്തുകളും കൂടാതെ നഗര പ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് കോര്പ്പറേഷന് കൊച്ചി കോര്പ്പറേഷനുണ്ട് അതുകൂടാതെ മുനിസിപ്പാലിറ്റികളുണ്ട് ഇതിൽ ഒരു സംവിധാനമെന്നു പറയുന്നത് പഞ്ചായത്തുകളാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാന്ഡിങ്ങ് കമ്മറ്റി ചെയര്മാന് വൈസ് പ്രസിഡന്റ് സ്റ്റാന്ഡിങ്ങ് കമ്മറ്റി ചെയര്മാന്മാർ മറ്റ് മെമ്പര്മാർ അത്തരത്തിലുള്ളൊരു സംവിധാനമാണുള്ളത് അതിന്റെ കൂടെ തന്നെ സെക്രട്ടറി ഉണ്ട് സെക്ക് സെക്രട്ടറി അസിസ്റ്റന്റ്റ് സെക്രട്ടറി ഇത്തരത്തിലുള്ള അതിന് അതിന് സപ്പോര്ട്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് ഇവിടെ ഏറ്റവും ചെറിയ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ് ഞാന് താമസിക്കുന്നത് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് പിന്നെ എറണാകുളം ജില്ലയിലെ എം എല് എമാര് എന്ന് പറയുമ്പോൾ ആദ്യം പറയാന് ഒ ഓര്മ്മവരുക വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവ് ആണ് അദ്ദേഹമാണ് എറണാകുളം ജില്ലയില് നിന്നുള്ള ഒരു പ്രമുഖ എം എല് എ ആയിട്ടുള്ള ആൾ

വ്യവസായിക മായിട്ട് എത്രത്തിൽ മൊത്തം സംസ്ഥാനത്ത് ഉന്നതിയിലേക്ക് കൊണ്ടുവരാന് എന്ന് എത്തര അത്തരത്തിലുള്ള പ്രവര്ത്തനങ്ങളാണ് നടത്തികൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യവസായ മീറ്റുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന്ണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള വളരെ നല്ല ശ്രമങ്ങൾ സര്ക്കാരിന്റെ ഭാഗത്തുന്നുള്ള ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ എല്ദോസ് കുന്നപ്പള്ളി എം എല് എ അഡ്വക്കേറ്റ്സ് ശ്രീ നിജന് തുടങ്ങിയവരെല്ലാം എറണാകുളം ജില്ലയില് നിന്നുള്ള എം എല് എ മാരാണ്